എൻ്റെയൊരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോളും ബൈക്കിങ്ങിന് ഒരു ഒരു പാഷൻ ആയിട്ടാണ് കാണുന്നത് കാരണം റൈഡ് ചെയ്യുക റൈഡ് ചെയ്യുന്നതിന് നമുക്കൊരു വല്ലാത്തൊരു എൻ എൻ്റെ ഒരു ഇതിൽ നോക്കിക്കഴിഞാൽ എൻ്റെ മൈൻഡ് റിലാക്സ് ആക്കാനായിട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്നെ റൈഡിങ്ങ് വളരെ സഹായിക്കും പിന്നെ നമ്മുടെ കോൺസൻട്രേഷൻ നമ്മുടെ ബ്രെയിൻ എപ്പോളും വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കാനായിട്ട് അതല്ലേ ബ്രെയിനിൻ്റെ ആ ഒരു എന്താണ് പറയുന്നത് ഒരു കോൺസൻട്രേഷൻ നമുക്ക് എന്തും വേണ്ടി ഉണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഒരു ഇതാണ് റൈഡിങ്ങ് എന്ന് പറയുന്നത് കാരണം എപ്പോളും നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ വേണ്ട കോൺസൻട്രേഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനർജി വേണം എപ്പോളും നമുക്ക് ഇപ്പം എനർജി ഇപ്പം നമ്മൾ ഒരു മോശം കണ്ടീഷനിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ല നല്ലപോലെ ഒരു പെർഫെക്റ്റ് ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ ഞാൻ ഒരിക്കലും ഒരു പെർഫെക്റ്റ് റൈഡർ ആണെന്ന് ഒരിക്കലും പറയത്തില്ല കാരണം എൻ്റെ ഭാഗത്ത് നിന്നും ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റുന്നതാണ് പക്ഷേ അതൊഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ നമ്മുടെ ബ്രെയിൻ കോൺസൻട്രേറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ എൻ്റെ സ്ട്രെസ്സ് ഒക്കെ വളരെ കുറയ്ക്കുന്നത് ഈ റൈഡിങ്ങിലൂടെയാണ് സ്ട്രെസ്സ് എല്ലാം കുറയ്ക്കുന്നത് എനിക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ റൈഡിങ്ങ് എന്ന് പറയുന്നത് അതിനെ ഞാൻ ഒരു പാഷൻ ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നതും അത് എനിക്ക് കൊണ്ടുവന്ന എൻ്റെ ജീവിതത്തിൽ കൊണ്ട് വന്നിരിക്കുന്ന വളരെ നല്ല ഉപ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഉപകാരങ്ങൾ കൊണ്ടാണ് ഞാൻ ഇതിന് പാഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് നെഗറ്റീവ് നോക്കാണേൽ ഒത്തിരി നെഗറ്റീവ് ഉണ്ട് പക്ഷേ എനിക്ക് നെഗറ്റീവ് ആയിട്ട് കൂടുതൽ ഒന്നും തോന്നാറില്ല